ഏതു തരത്തിലാണ് നവമാധ്യമങ്ങളും ഇൻ്റർനെറ്റും സംരംഭത്തെ സഹായിച്ചത് എന്നു വച്ചാൽ ഇപ്പോൾ നമ്മുടെ സംരംഭത്തിനെക്കുറിച്ച് ഇപ്പോൾ മറ്റുള്ളവർക്ക് ഒരറിവാണെങ്കിലും അവരിലേക്ക് എത്തിക്കാനും നമുക്ക് ഇൻ്റർനെറ്റ് വഴിയും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പല തരത്തിലും സോഷ്യൽ മീഡിയ ഉണ്ട് അതിലൂടെയൊക്കെ പരസ്യപ്പെടുത്തിയിട്ടൊക്കെ സംരംഭത്തെ മറ്റു ആൾക്കാരിലേക്ക് എത്തിക്കുകയും നമ്മുടെ ന്യൂനീകരിക്കുകയോ ഒക്കെ ചെയ്യാം അതുപോലെതന്നെ മാധ്യമങ്ങളിലും ടി വിയിലും ടി വീയിലെ ടി വീയിലെ അഡ്വർടൈസ്മെൻ്റിലും അതുപോലെ ഒരുപാട് അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിക്കുകയും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളുടെ ആ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഈ പരസ്യങ്ങളിലൂടെ നമുക്കും നമ്മളിലേക്ക് എത്തിക്കും എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഫോണിലോ ഫോൺ ഉപയോഗിക്കില്ലേ ഫോണിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് അറിവുകളും അതൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സംരംഭം കുറച്ചുകൂടി ന്യൂനീകരിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കും അറിവുകൾ കിട്ടുന്നുണ്ട്